ഹലോ ഇത് എയർലൈൻ ഓഫീസല്ലേ ആ അതെ ഞാൻ വിളിച്ചതേ കുറച്ചു പ്രായമുള്ള ഒരാള്ക്ക് യാത്രാസഹായത്തിനു വേണ്ടിയായിരുന്നു ആ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് അതെ അപ്പോള് അവരെ കയറ്റിവിടാൻ വേണ്ടിയിട്ടാണ് കൂടെ ആരുമില്ലേ

അപ്പോള് അത്യാവശ്യം നല്ല പ്രായമുണ്ട് അപ്പോള് അവർക്ക് ഒരു എന്തായാലും നന്നായി ശ്രദ്ധിക്കാൻ കഴിയണം അപ്പോള് അത്യാവശ്യം നല്ല പ്രായമുള്ളതാണ് ഇപ്പോഴവർക്ക് ബോഡിങ്ങിലുള്ള മുൻഗണന അതുപോലെ ഇരിക്കാനും വിമാനത്തിലേക്കു പോവാനുള്ള ലിഫ്റ്റിങ്ങും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ അതായത് മൊബിലിറ്റി ഉണ്ടാവുമല്ലോ ഇങ്ങോട്ടും ക്ക് ഇങ്ങോട്ട് അങ്ങനെ എന്തെങ്കിലും ബാത്ത് റൂം സഹായങ്ങളും അങ്ങനെയെല്ലാം ചെയ്യണം അതിനുള്ള സഹായങ്ങളെന്തൊക്കെയാണ് എയർലൈനില്നിന്നു കിട്ടുക അയാളെ ഒറ്റയ്ക്കു കയറ്റി വിടണമെന്നുണ്ടെങ്കില് അതിനെ കുറിച്ചൊന്നറിയണമായിരുന്നു ആ ഓക്കെ ആ ഈ ഓഫീസിലേക്ക് അവിടെത്തുക അല്ലേ വിളിക്കുകയാണോ വേണ്ടത് ഓക്കെ ആ ആ ഓക്കെ വിവരങ്ങൾ തന്നതിന് താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച്